യാത്രക്കാരനെന്ന നിലയിൽ എനിക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ചിലതൊക്കെയാണിത് അതിൽ തന്നെ ടൊയ്ലറ്റ് സൗകര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പ കൂടുതൽ ബസ് സ്റ്റാൻഡുകളിലും മറ്റു പെട്രോൾ പമ്പുകളിലും എല്ലാം ടൊയ്ലറ്റ് സൗകര്യമുണ്ട് അതേസമയത്തെ അവിടുത്തെയൊക്കെ ശുചീകരണത്തെ പറ്റിയും വൃത്തിയെ പറ്റിയും വളരെ മോശം അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഇത്രയും മോശമായ രീതിയിലാണ് എല്ലാം ഇപ്പോഴും കിടക്കുന്നത് പല സമയത്തും ഞാൻ കയറി കയറിയപ്പോഴും എല്ലാം വളരെ മോശം അനുഭവമാണ് എനിക്കുണ്ടായത് ഇത്രയും വൃത്തിഹീനമായ ടൊയ്ലറ്റുകളും അത് മറ്റും ആണ് നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും മാത്രമല്ല ചില പെട്രോൾ പമ്പുകളിലും കാണാൻ സാധിക്കുന്നത് പെട്രോൾ പമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പെട്രോൾ പമ്പുകൾ ഈയിടെയായി വള കുറേ കുറേ വരുന്നുണ്ട് എന്നിരുന്നാലും ചില അത്യാവശ്യ സ്ഥലങ്ങളിലെല്ലാം പെട്രോൾ പമ്പിൻ്റെ സാന്നിധ്യം ഇല്ലയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ ആവശ്യകത എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും മുൻകൂട്ടി അറിയാൻ പറ്റില്ല അതുകൊണ്ട്തന്നെ പെട്രോൾ പമ്പുകളുടെ പെട്രോൾ പമ്പുകളുടെ സാന്നിധ്യം ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ മലയോരങ്ങളിൽ ചില മലയോരങ്ങളിൽ എന്നുവെച്ചാൽ ചില അത്യാവശ്യ സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്ഷണ സാദ്ധ്യതകളെ കുറിച്ച് പറഞ്ഞാൽ എല്ലായിടത്തും ഭക്ഷണം ലഭിക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെതന്നെ ചില അത്യാവശ്യ സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം അധികവില്ല അതുകൊണ്ടുതന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ പലതും ഉണ്ടായിട്ടുണ്ട് ഭക്ഷണ സാദ്ധ്യതകൾ വളരെ കുറവാണെന്ന് പറയുന്നില്ല എന്നാലും മിതമായ രീതിയിൽ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കടകളും മറ്റും ഉണ്ടാവില്ല മാത്രമല്ല രാത്രിയായാലും കടകളില്ല പെട്രോൾ പമ്പുകളും അങ്ങനെ തന്നെയാണ് ചില സമയങ്ങളിൽ ചിലതൊന്നും പ്രവർത്തിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെയും പ്രവർത്തിക്കുന്നില്ല അതുപോലെതന്നെയാണ് കടകളും മറ്റും ഷോപ്പുകളുടെയും കാര്യങ്ങൾ എല്ലാം തന്നെ